എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിൻസാണ് അതിനു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കഴുത്തിന് താഴോട്ട് തളർന്ന് പോയി ഒരു രോഗം മൂലം പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് അത് ഒരു വീൽചെയറിലും ഒരു കംപ്യൂട്ടറിലുമായി ഒതുങ്ങിക്കൂടിയ ആ മനുഷ്യൻ പല രീതീലുള്ള മാറ്റങ്ങളും ആസ്ട്രോണമിയിലായിക്കോട്ടെ മാത് മാത്തമാറ്റിക്സിലായിക്കോട്ടെ ഫിസിക്സിലായിക്കോട്ടെ ഇതൊക്കെ കൊണ്ട് വരുന്നതാണ് നല്ലൊരു മാത്തമാറ്റീഷ്യനാണ് അദ്ദേഹം നല്ലൊരു ഫിസിസ്റ്റണാദ്ദേഹം നല്ലൊരു ആസ്ട്രോണമിസ്റ്റാണ് അദ്ദേഹം സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു യത്തിസ്റ്റ് കൂടിയാണ് ഐസക്ക് ന്യൂട്ടനെ പോലെ സർ ഐസക്ക് ന്യൂട്ടനെ പോലെ ഗ്രാവിറ്റി എന്താണെന്ന് ചോദിച്ചപ്പോൾ സർ ഐസക്ക് ന്യൂട്ടൻ പറഞ്ഞത് എന്താണെന്ന് വച്ചാൽ അതൊരു ഫോഴ്സ് ആയിരിക്കാം മറ്റേതോ ഒരു പ്രപഞ്ചശക്തി അത് ദൈവമായിരിക്കാം അവർ നമ്മളിൽ തരുന്ന ഭൂമിക്ക് തരുന്ന ഒരു ഫോഴ്സായിരിക്കാം എന്നാണ് സർ ഐസക്ക് ന്യൂട്ടൻ പറഞ്ഞത് അദ്ദേഹത്തിനറിയില്ലായിരുന്നു കാരണം അദ്ദേഹത്തിനറിയില്ലായിരുന്നു എന്താണ് ഗ്രാവിറ്റി എന്നുള്ളത് അതിനുള്ള കൃത്യമായ ഡെഫനിഷൻ പിന്നീട് ഐൻസ്റ്റീനാണ് കൊണ്ട് വന്നത് അതേപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങള് ഒരിക്കലും ദൈവത്തിൻ്റെ തലയിൽ കൊണ്ട് പോയി വെക്കുന്ന ഒരു പ്രവണത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അദ്ദേഹത്തിനറിയില്ലെങ്കിൽ അത് അറിയില്ലാന്നും ഇനി അങ്ങനെ ഒന്ന് ഉണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അതിനുള്ള ഉത്തരവും കൃത്യമായി നൽകുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ടൈം ട്രാവല്ലിംഗ് ടൈം ട്രാവലിങ് സാധ്യമാണെന്ന് തിയറി ഓഫ് റിലേറ്റിവിറ്റി വഴി ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി വഴി നമുക്ക് സമർഥിക്കാൻ കഴിയും പക്ഷെ അത് നമ്മുടെ ടൈം ട്രാവലർ നമുക്ക് ഇടയിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഒരു എക്സ്പിരിമെന്റ് ചെയ്തു ടൈം ട്രാവലേഴ്സ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു എക്സ്പിരിമെന്റ് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വച്ചാൽ അദ്ദേഹം ഒരു ഗാതറിങ്ങ് കൊണ്ടുവന്ന് അതിൽ സ്റ്റീഫൻ ഹോക്കിൻസ് സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ സഹായികളും മാത്രമേ പങ്കെടുക്കാൻ അറിയാൻ പാടുള്ളൂ അതിനെക്കുറിച്ച് അന്നേ ദിവസം വരെ അറിയാൻ പാടില്ല എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഇതിനോട് ക്ഷണക്കത്ത് എല്ലാവർക്കും കൊടുക്കുന്നു ടൈം ട്രാവലേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തലേ ദിവസം നടന്ന പരിപാടീല് ആൾക്കാർ വരേണ്ടതാണ് പക്ഷേ ആരും വന്നില്ല ഇതാണ് ടൈം ട്രാവലേഴ്സ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇത് വഴി ടൈം ട്രാവലർ നമ്മുടെ ചുറ്റുപാടും എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നും ടൈം ട്രാവല് ചെയ്യുക പിന്നിലേക്ക് ടൈം ട്രാവല് ചെയ്യുകയെന്നുള്ളത് പോസിബിൾ അല്ലായെന്നും സ്റ്റീഫൻ ഹോക്കിസ് ഹോക്കിൻസ് പറഞ്ഞ് വച്ചു അതേപോലെ ഏലിയൻസിൻ്റെ കാര്യമാണെങ്കിലും അദ്ദേഹം ഏലിയൻസിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഏലിയൻസ് നമ്മുടെ ഭൂമിയെ കടന്ന് ആക്രമിക്കുമോ എന്നുള്ള ചോദ്യത്തിന് എന്നും അദ്ദേഹം പറയുന്നത് ഞാൻ ഏലിയൻസിനെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഏലിയൻസ് ഉണ്ട് എന്നുള്ള ഒരു തെളിവ് കിട്ടീട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഏലിയൻസ് ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നില്ല പക്ഷേ മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞത് അതേപോലെ തന്നെ ഹോക്കിങ് റേഡിയേഷൻ ബ്ലാക്ക് ഹോളുകൾ എങ്ങനെ ഇല്ലാതാകുന്നു ഭൂമിയിൽ നിന്ന് ഇല്ല അല്ല ലോകത്ത് നിന്ന് ഇല്ലാതാകുന്നു എന്നുള്ളതിനുള്ള ഉത്തരം ഹോക്കിങ് റേഡിയേഷൻ വഴി അദ്ദേഹം തെളിയിച്ചു ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ സ്റ്റീഫൻ ഹോക്കിൻസ് നടത്തീട്ടുണ്ട് ഒരു എത്തീസ്റ്റായതു കൊണ്ട് തന്നെ ദൈവത്തിൽ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കൽപ്പത്തിൽ ആ ഒരു വിശ്വാസത്തിൽ പൂർണ്ണമായി നിരാകരിക്കുന്ന സ്റ്റീഫൻ ഹോക്കിൻസ് ശാസ്ത്രത്തെ അതേപടി വിശ്വസിക്കുകയും അതുവച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്ത ഒരാളാണ് ഈ അടുത്ത കാലത്താണ് സ്റ്റീഫൻ ഹോക്കിൻസ് അന്തരിച്ചത് അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അത് ഒട്ടുമിക്ക മനുഷ്യരും കോമണായിട്ടുള്ള എല്ലാവരും പറയുന്നൊരു പേരായിരുന്നു എന്തായാലും ആൽബർട്ട് ഐൻസ്റ്റീൻ ഞാനും അദ്ദേഹത്തിൻ്റെ പേര് പറയും കാരണം എന്ന് പറയുന്നത് ഒരു കാലഘട്ടം വരെ എന്താണ് ഗ്രാവിറ്റി എന്താണ് ഭൂമി ഭൂമി എന്തുകൊണ്ടാണ് സൂര്യനെ ചുറ്റുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഇതിനൊന്നും ഉള്ള ഒരു ഉത്തരം നമുക്കാർക്കും അറിയില്ലായിരുന്നു പക്ഷെ പത്തൊമ്പതുകളുടെ കാലഘട്ടത്തിൽ ഒരു ശാസ്ത്രജ്ഞൻ ഇതിനുള്ള ഉത്തരമായി വന്നു ആ അദ്ദേഹത്തിൻ്റെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു ഗ്രാവിറ്റി എന്നത് സ്പേസ് ടൈമിൻ്റെ ബെൻഡിങ്ങാണ് കർവെച്ചറാണെന്ന് പറഞ്ഞു ന്യൂട്ടൻ്റെ തിയറികൾ തെറ്റാണന്ന് പറഞ്ഞു അന്ന് അന്ന് ഈ കാലഘട്ടം ന്യൂട്ടൻ്റെ തിയറികൾ തെറ്റാണെന്ന് പറയാൻ കാണിച്ച ധൈര്യം കാണിച്ച ഒരേ ഒരു ശാസ്ത്രജ്ഞനെ ഉള്ളൂ അത് ഐൻസ്റ്റീനായിരുന്നു മാത്രമല്ല ഇമാജിനേഷനും സയൻസും ഒരുപോലെ കൊണ്ട് പോയി തിയറികൾ ഉണ്ടാക്കിയൊരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നതൊക്കെ ഇതേപോലെ തെളിവുകളില്ലാതെ അദ്ദേഹം ഇമാജിനേഷൻ കൊണ്ട് ഉണ്ടാക്കിയ തിയറികളാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായും എല്ലാവരും അന്നേ ആ കാലഘട്ടത്തിൽ പിന്തള്ളുകയും ഐൻസ്റ്റീന് യാതൊരു രീതിയിലുള്ള പിന്തുണ കൊടുക്കാതിരിക്കുകയും ചെയ്തു പക്ഷേ കാലക്രമേണേ ഈ തിയറികളൊക്കെ ശരിയാണെന്നും ഇതൊക്കെ മാസ്സുള്ള പദാർഥങ്ങൾ ആപ്ലിക്കബിൾ ആണെന്നും തെളിയിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വളരെ വലിയ രീതിയിൽ പോപ്പുലറാവുകയും ചെയ്തു പിന്നെ നമ്മൾ കേരളക്കാർക്കും ആൽബർട്ട് ഐൻസ്റ്റീനും തമ്മിലൊരു ബന്ധമുണ്ട് എന്താ വച്ചാൽ നമ്മുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വരുമ്പോൾ കേരളത്തിലെ തിരുവിതാംകൂർ യൂണിവേർസിറ്റി ഇവിടെ സ്ഥാപക സമയത്ത് ഇദ്ദേഹത്തെ അതിൻ്റെ പ്രൊഫസറായി നീ നിയോഗിക്കാനുള്ള ലെറ്റർ നമ്മുടെ തിരുവിതാംകൂർ അന്നത്തെ ഭരണാധികാരിയായിരുന്ന തിരുവിതാംകൂർ രാജവംശത്തിലുള്ള രാജാവ് അയക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹം അത് പിന്നീട് വേണ്ടായെന്ന് വയ്ക്കുകയായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ബന്ധം നമുക്കുണ്ട്